ഹലോ ഹലോ അതെ അതെ അതെ ആ എന്നാ വിളിച്ചത് ആണോ എവിടെയായിട്ടാണ് വേണ്ടത് നിങ്ങൾക്ക് ടൗണിത്തന്നെ വേണം അല്ലേ ആ എങ്ങനത്തെ വീടാണ് വേണ്ടത് ശരി അത് എങ്ങനാണ് ഒരു നില ആയിട്ട് വേണോ അതോ രണ്ട് നിലയായിട്ട് വേണോ കുഴപ്പമില്ല അല്ലേ ആ ഏകദേശം എമൗണ്ട് നിങ്ങൾ ആവോ ഓക്കെ എന്തെ എമൗണ്ട് എന്തുമാത്രം പ്രതീക്ഷിക്കുന്നുണ്ട് അത്രേ ഉള്ളു ആ ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾക്ക് ആലപ്പുഴ ടൗണീത്തന്നെ വേണമല്ലേ ഓക്കേ റോഡ് സൈഡായിരിക്കണം വണ്ടി അത്യാവശ്യം വണ്ടി കയറത്തക്ക രീതിയിലായിരിക്കണമല്ലോ അയ്യ മൂന്നിന് ആലപ്പുഴ ടൗണിലൊക്കെ പതിനഞ്ച് പതിനഞ്ച് ലക്ഷമല്ലേ ഉദ്ദേശിക്കുന്നത് വാടക ഓ വാടകയ്ക്ക് വാടകക്ക് അപ്പോൾ നിങ്ങൾ ഡിപ്പോസിറ്റെന്ന് കൊടുക്കും ആദ്യമേ ഫസ്റ്റ് ഡിപ്പോസിറ്റ് മൂന്ന് മാസത്തെ ഡിപ്പോസിറ്റ് കൊടുക്കാം അപ്പോൾ പതിനയ്യായിരം രൂപ വെച്ചല്ലേ മന്ത്ലി നിങ്ങളെങ്ങനാണ് കൂടെ ആരൊക്കെയുണ്ട് ഭാര്യയും പിള്ളാരും എത്രപേർ കാണും രണ്ട് കുട്ടികൾ പിള്ളേർ പഠിക്കുവാണോ അതോ വല്ല ജോലിയോ വല്ലതും ഉണ്ടോ പഠിക്കുവാണല്ലേ അ അ അ ഞാൻ രണ്ട് മൂന്ന് പേർക്കൊന്ന് വിളിച്ച് ചോദിക്ക രണ്ട് മൂന്ന് പേരുടെ വീട് ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്ന് അപ്പോൾ ഞാൻ അവരെ ഒന്ന് വിളിച്ചൊന്ന് ചോദിച്ചിട്ട് നമുക്ക് പോയി സ്ഥലം നേരിട്ട് കാണാം കണ്ടിട്ട് നമുക്ക് എങ്ങനുണ്ട് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എത്രയും പെട്ടന്ന് ചെയ്ത് തീർത്തക്ക രീതിയിൽ തന്നെ ചെയ്യാം ആ അപ്പോൾ റോഡിനോടടുത്ത് തന്നെ വേണേനും താനും അല്ലെ ഈ ആ അപ്പോൾ പിന്നെ വേറെ വീട് മാത്രം മതിയോ വേറെന്തെങ്കിലും നോക്കുന്നുണ്ടോ ചെയ്യാവുന്നതക്കേര്ന്നോ ആ അത് നമ്മൾ അത് നമ്മുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ട് ആ ഓക്കെ ഓക്കെ അത് അത് ഇരുന്നൂറ് സ്കൊയർ ഫീറ്റല്ലേ ആ ആ ആ അത് എങ്ങനാണ് ഒറ്റ ഹാളായിട്ട് വേണോ അതോ ഇടക്ക് പാർട്ടീഷൻ ഉള്ളോണ്ട് കുഴപ്പമുണ്ടോ ഓപ്പീസിന് വേണ്ടീട്ടല്ലേ ചെയ്യൂ ചെയ്യൂ ആ ആ ഓക്കെ പാർട്ടീഷ് പാർട്ടീഷനൊക്കെ ചെയ്ത് ഒരുമാതിരി തിരിച്ചോളാം എന്നല്ലേ സ്പ്ലിറ്റ് ചെയ്തോളാം ആ ആ എന്ത് എന്തുവാണ് എന്തുവാണ് ജോലി

ആ ഒ ഒ ഒ ശരി ശരി ആ അപ്പം ഞാനൊന്ന് നോക്കട്ടെ നോക്കീട്ടെ ഞാൻ പറയാം ആ ശരി എന്തൊക്കെ ആയാലും ഞാൻ ഈ നമ്പരീ ഈ നമ്പരീ തിരിച്ച് വിളിക്കാം കേട്ടോ ശരി ആ ശരി ഓക്കേ